ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്ക് അല്ലെ നിങ്ങളുടെ ഹോട്ടലില് സീ ഫുഡ്ഡ് ഐറ്റംസ് എന്തൊക്കെയാ വരുന്നെ ഒക്കെ നിങ്ങളുടെ ഹോട്ടല് എവിടെ ഒക്കെയാ ഉള്ളത് ഞങ്ങള് കുറച്ച് ലോംഗ്ന്ന് വരുന്നെയാ ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ട് വരുന്നെയാ ആ അപ്പൊൾ കോഴിക്കോട് ആണെങ്കിൽ ഈൻ്റ റേയ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്

ഒക്കെ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെയോ എവിടെ കോഴിക്കോടെന്നെ ഉണ്ടോ അല്ലെങ്കിൽ മലപ്പുറത്തോ ആലപ്പുഴ ല്ലെ ആ ഓക്കേ ഈ സീ ഫുഡ്ഡ് അല്ലാണ്ട് വേറെ ഐറ്റംസ് അത് ഒക്കെ ഫാമിലി ആയതോണ്ട് അത്യാവശ്യം ലോ ബഡ്ജറ്റ് ചെയ്തുതരാൻ പറ്റില്ല നിങ്ങൾക്ക് റൂമും കാര്യങ്ങളെല്ലാം ആ ആ ഓക്കെ നിങ്ങളുടെ ഈ ഇപ്പൊൾ നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് ഇപ്പം നിങ്ങൾ എവിടെയാണ് ഉള്ളത് കോഴിക്കോടോ ആ ഓക്കെ ഞാൻ വന്നിട്ട് കണ്ടോളാം ഞാനൊര് പതിനഞ്ചാംതീ ഒക്കെ ആവുമ്പത്തേനും വരും ആ ഞാന് അപ്പം നിങ്ങളെ കണ്ട് സംസാരിച്ചോളാം എൻ ഒരു ആറ് പേര് കാണും ആ ഞങ്ങള് എന്തായാലും എന്തായാലും കോഴിക്കോട് ഞങ്ങള് ഇതാക്കുന്നില്ല ആലപ്പുഴ ആണെങ്കിൽ ഒരു ടെൻ ഡേയ്സ്

ഓക്കെ ആ ആ ഓക്കെ എന്നാൽ എത്തുമ്പോൾ ഒന്ന് വിളിക്കാം

ഓക്കെ ഞാൻ എന്നാൽ എത്തുമ്പം വിളിക്കാം